ഓക്കെ ഓക്കെ അഞ്ചു എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ ഓക്കെ ഓക്കെ ഓക്കെ ആ രണ്ട് നേരങ്ങളിലാണ് ഉള്ളത് രാവിലെയും വൈകുന്നേരാണ് ഉള്ളത് രാവിലെ ആകുമ്പം ഒരു ആറ് അര മുതൽ ഉണ്ടാവും ആറ് അര മുതൽ ഒരു എട്ട് മണി വരെ ഉണ്ടാവും വൈകുന്നേരവും ആ ഒരു സമയം ആ സമയത്തന്നെയാണ് ഉണ്ടാവാ ഇപ്പോൾ എസ് എസ് എൽ സി ആയോണ്ട് ആ സമയം ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഓ കഴിഞ്ഞോ ഓക്കെ ഓക്കെ ഇല്ല ഇല്ല അത് ഒന്നും കുഴപ്പം ഇല്ല പൈസ പറയാം നീ നീ വരുന്നുണ്ടോ നാളെ മുതൽതന്നെ ആ ഓക്കെ ആ അന്നേരം പറയാം ഫീസ് ഒക്കെ അപ്പോൾ പറയാം

ഉവ്വ് ആ വാരത്തുന്ന് ഇല്ല അവിടുന്ന് മുണ്ടയാടുന്ന് ഒക്കെ കുറച്ച് കുട്ടികൾ വരുന്നുണ്ടല്ലോ രണ്ട് മൂന്ന് കുട്ടികൾ വരുന്നുണ്ട് പിന്നെ ഏച്ചൂർ സൈഡുന്ന് ആണ് വരുന്നത് നിങ്ങൾ എവിടെയാണ് സ്ഥലം നിൻ്റെ വീട് എവിടെയാണ് ഓ ആ ആ അവിടുന്ന് അവിടുന്ന് ആരും ഇല്ല ഇത് വരുന്ന സ്ഥലം എവിടെയാണെന്ന് അറിയോ വലിയന്നൂര് ആണ് വലിയന്നൂരാ എത്തേണ്ടത് നിങ്ങളുടെ സ്റ്റോപ്പിൻ്റെ അടുത്ത സ്റ്റോപ്പന്നെ ആ അന്നേരം പറയാം ഓക്കെ നീ നോക്ക് ആ ആ ശരി ശരി ആ ഓക്കെ ഓക്കെ